വെറ്റിനറി ഡോക്ടറല്ലേ ആ ഒരു ഡോഗുണ്ട് ജർമ്മൻ ഷെപ്പേഡാണ് ഒരു മാസം പ്രായമായിട്ടുണ്ട് അവനിപ്പോൾ ദേഹത്തെ രോമമൊക്കെ കൊഴിയുകയാണ് ചെറിയ ഒര് മുറിവുപോലെയൊക്കെ കാണുന്നുണ്ട് ദേഹം മൊത്തമുണ്ട് ദേഹം മൊത്തമായിട്ടിപ്പോൾ ആദ്യം പാടുകൾ ആ അതെ ഈ രോമം അങ്ങ് കൊഴിഞ്ഞതിനുശേഷം അവിടെ ചെറിയ ചെറിയ ഒരു കുരുപോലെ വന്നിട്ട് അതൊരു മുറിവായി മാറുകയാണ് അത് നമ്മളാദ്യം ശ്രദ്ധിച്ചിരുന്നില്ല ഒന്നാമത് ജർമ്മനായതുകൊണ്ട് അത്യാവശ്യം രോമമുള്ള ടൈപ്പാണല്ലോ അപ്പോൾ പയ്യെ പയ്യെ ഇങ്ങനെ കൊഴിയുന്നുണ്ടായിരുന്നു അതിപ്പോൾ നന്നായിട്ട് കൊഴിയാൻ തുടങ്ങിയിട്ടാണ് നന്നായിട്ട് കൊഴിയാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കണത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരു രണ്ടുമാസം കഴിഞ്ഞുകാണും ഇപ്പോൾ കൊഴിയാൻ തുടങ്ങിയിട്ട് ഇതിൽ ഭക്ഷണം കഴിക്കുന്നതിലൊന്നും കുറവില്ല പക്ഷേ ഇടയ്ക്ക് അവൻ വൊമിറ്റ് ചെയ്യുന്നുണ്ട് ആ അപ്പോൾ ഈ വോമ്സിൻ്റെ ശല്യമാണോയെന്ന് നമുക്കൊരു സംശയമുണ്ടായിരുന്നു ഇടയ്ക്കൊരു മരുന്നൊക്കെ കൊടുത്തായിരുന്നു ഇവിടെ മെഡിക്കൽ ഷോപ്പിൽപ്പോയിട്ട് വോമ്സിനുള്ള ഡിവോമിങ്ങിൻ്റെ മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ എന്തായിരിക്കുമെന്ന് അറിയാനാണ്

ആ അതെ അതെ അവന് രണ്ടു നേരമാണ് ഇപ്പോൾ കൊടുക്കുന്നത് നാലുമാസം പ്രായമായിട്ടുള്ളൂ

ആ ഓക്കേ ഓക്കേ ആ ഇന്നുണ്ടാവുമല്ലോ അല്ലേ ഓക്കേ ആ ശരി സർ ശരി ഡോക്ടർ